ഇന്ത്യയിലെ ഗതാഗത സാഹചര്യം ഇപ്പോൾ വളരെ മുന്നോട്ട് അല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് ഇപ്പോൾ എന്താണ് പറയുക ടെക്നോളജികൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് പുതിയ പുതിയ തലത്തിലേയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വന്ദേഭാരത് ട്രെയിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വന്ദേഭാരത് അതായത് കൂടുതൽ സ്പീഡിൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ സമയം കൂടുതൽ ദൂരം എത്താൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളോജിയും കാര്യങ്ങളൊക്കെ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് പറയുമ്പോൾ പിന്നെ അതു മാത്രമല്ല ഇപ്പോൾ എയർലൈൻ ഫീൽഡായാലും ഇപ്പോൾ ഏറോപ്ലെയിനിൻ്റെ അതുപോലെ ബസ്സ് റൂട്ടുകളായാലും എല്ലാത്തിനും പുതിയ ഒരു മുന്നോട്ടുള്ള സ്റ്റെപ്പ് അതായത് മുന്നോട്ടാണ് എല്ലാ രംഗത്തും നമ്മൾ ഇപ്പോൾ മേന്മ അല്ലെങ്കിൽ മേൽക്കൈ എന്നുള്ള രീതിയിൽ പിന്നെ എന്താണ് പറയുക കുറച്ചും കൂടി ഫോർവേഡ് ആയിട്ട് പഴയകാലത്ത് നിന്നും ഇപ്പോൾ നമ്മൾ പുതിയ രംഗത്തേക്ക് ഇറങ്ങി വന്നു കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ പുതിയ ടെക്നോളജി പുതിയ രീതികൾ എല്ലാത്തിന്നുമിപ്പോൾ വികസനത്തിൻ്റെ പാതയാണിപ്പോൾ നമ്മളിപ്പോൾ കണ്ട് കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ വെല്ലുവിളികളെ അല്ലെങ്കിൽ എന്താ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ നമുക്ക് ഇപ്പോൾ കുറേ വികസനങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യ പൊതുവെ നോക്കുകയാണെന്നു പറയുമ്പോൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക ഘടന നമ്മുടെ ഫിസിക്കലായിട്ട് അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ ഘടന ശാസ്ത്രീയ വശങ്ങൾ നോക്കുകയാണെങ്കിൽ മലകളും കുന്നുകളും അങ്ങനത്തെ പ്രദേശങ്ങളും കൂടുതലുള്ള കാരണം കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഗതാഗതം അറ്റ് എ ടൈം എത്തിക്കണമെങ്കിൽ ചില സമയത്ത് നമുക്ക് പ്രകൃതിയെ ചില സമയത്ത് ചില ഘടകങ്ങൾ അതിൽ മുന്നോട്ട് വരും ഇപ്പോൾ നമ്മുടെ മലകളുടെ അടുത്തോ തുരക്കണം അല്ലെങ്കിൽ ഗതാഗതം ജലത്തിൻ്റെ അടിയിൽക്കൂടി ഇപ്പോൾ കടലിന്റെ അടിയിൽക്കൂടി പാത ഇടണം അല്ലെങ്കിൽ പുഴയുടെ അങ്ങനെ പാലങ്ങൾ സൃഷ്ടിക്കണം അപ്പോൾ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ ഭാഗത്തും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നദിക്കെതിരെയൊക്കെ ഈ ഇതൊക്കെ ഇടണ സമയത്ത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണുണ്ട് എന്നാലും നമുക്ക് മാക്സിമം എല്ലായിടത്തും നമ്മുടെ വികസനത്തിൻ്റെ ഇപ്പോൾ ഗതാഗതരംഗത്ത് എല്ലാ മേഖലയിലും ഇപ്പോൾ റോഡ് മാർഗ്ഗം മിക്കവാറും റോഡുകളുടെ പണിയാണെങ്കിൽ ഇപ്പോൾ റോഡ് പണികളൊക്കെ എൻഎച്ചുകൾ ഹൈവേകള് അതൊക്കെ നല്ല സ്പീഡില് ഇപ്പോൾ ആറ് വരി പാതകളൊക്കെ നമുക്ക് ഭയങ്കര സ്പീഡിലാണ് പണിതുകൊണ്ടിരിക്കണത് അപ്പോൾ എല്ലാ രംഗത്തും നമുക്കൊരു മേൽകൈ ആണ് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തില് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് കാണാനും സാധിക്കുന്നത്